ഹലോ മാഡം പറയൂ ഓക്കെ സാർ സെവൻ സീറ്റാണോ ഫൈവ് സീറ്റാണോ അതോ ബസ്സോ അങ്ങനെ എന്തെങ്കിലും ആണോ വണ്ടി കാർ ഇന്നോവ മതിയോ അതോ ബൊലോറോയോ

ചാർജ് ചാർജെന്നു വച്ചു കഴിഞ്ഞാൽ ബൊലോറോയാകുമ്പോൾ ഓഫ്റോഡ് കയറുന്നുണ്ടോ അങ്ങനെ ആണെങ്കിൽ ഥാർ ആക്കിയാൽ മതിയോ ആഹ് ഓഫ്റോഡ് കയറുന്നുണ്ടെങ്കിൽ ഥാർ ആണ് നല്ലത് സെവൻ സീറ്റ് ആണ് അതിൽ പിന്നെ ഡിക്കിയും കൂടി വരുന്ന ടൈപ്പാണ് സാധനം ഉണ്ടെങ്കിൽ ആഹ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഫുഡ്ഡ് എങ്ങനെയാണ് വേണ്ട നമ്മൾ ഹോട്ടലിൽ പോകുന്നതിനെകാട്ടിയും നല്ലതെന്നു പറയുന്നത് നമ്മൾക്കായിട്ടുതന്നെ ഒരു വണ്ടി ഉണ്ട് ആഹ് ഉണ്ട് ഫുഡ്ഡ് കൊണ്ടുവരാനായിട്ടു തന്നെ ആഹ് നമ്മളെ അതുതന്നെയാണ് കേട്ടോ അതിന് കുറച്ച് റെയ്റ്റേ വരുള്ളൂ ഹോട്ടലിൽ നമ്മൾ വെറുതെ പോകണ്ട അതാകുമ്പോൾ വൺ വീക്കും ഉണ്ടാവും ഉച്ചനേരം പറയുന്നതു പോലെ അതു നിങ്ങൾ ലിസ്റ്റ് തരുന്നതുപോലെ എല്ലാം ഉണ്ടാകും ഇവിടെ വയനാട്ടിൽ ഉണ്ട് നമുക്ക് മൂന്നാർ വഴി ഊട്ടിക്ക് പോകാം ഓക്കെ പിന്നെ അതിന്റിടയ്ക്ക് കുറച്ച് സ്ഥലം കൂടി ഉണ്ട് നമുക്ക് ആദ്യം നിങ്ങളെ മെയിൻ സ്ഥലത്ത് പോയിട്ട് ടൈം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് കയറാം ഓഹ് ബുക്ക് ചെയ്യാമല്ലോ ഓക്കെ ഥാർ ഓക്കെ ഥാറിൻ്റെ നിങ്ങൾ കളർ നോക്കുന്നുണ്ടോ വണ്ടിയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ ആഹ് പറഞ്ഞതാണ് ഓഫ്റോഡ് പോകുമ്പോൾ ഫോട്ടോസ് ഒക്കെ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് ഞാൻ മോഡിഫൈഡ് ചെയ്ത ടൈപ്പും ഉണ്ട്

ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ ഈ നമ്പറിൽ വിളിക്കാം ഓക്കെ ശരി ഓക്കെ